ഞങ്ങളുടെ പട്ടണം ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരോഗ്യ സംരക്ഷണം മികച്ചതാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഹെൽത്ത് സെൻററുകളിൽ നല്ല ഡോക്ടർമാരെയും നല്ല സേവകരെയും നിയമിക്കുക പിന്നീട് ഇഷ്ടം ആവശ്യത്തിനുള്ള മരുന്നുകൾ നമ്മുടെ ഏതു രോഗത്തിനും ആവശ്യത്തിനുള്ള മരുന്നുകൾ ലഭ്യമാകുന്ന രീതിയിൽ അതിനുള്ള സ സജീകരണങ്ങൾ ചെയ്തു തരിക ഇതൊക്കെ നമ്മളുടെ സഹ അതൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതലായും സഹായമായിട്ട് ഗവൺമെൻറ്റിൽ നിന്നും സർക്കാരിൽ നിന്നും ആവശ്യമായിട്ടുള്ളത് നല്ല നല്ല ഡോക്ടർമാർ കൂടുതലും എല്ലാ രോഗങ്ങൾക്കും വേണ്ടി ഓരോ ഡോക്ടർമാരെ ഏതു രോഗമാണോ ആ രോഗത്തിന് ആവശ്യമായ ഡോക്ടർമാരെ കണ്ടെത്താനുള്ള ഒത്തിരി ഒത്തിരി ആശുപത്രികളിൽ കയറിയിറങ്ങാതെ ഒരാശുപത്രിയുടെ കീഴിൽ തന്നെ അതും ഞങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് അത് കൂടുതലും അന് അനുഗ്രഹപ്പെടും കാരണം ഞങ്ങളുടെ ഹെൽത്ത് സെൻ്ററുകളിൽ എന്നു വെച്ചു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശമാണ് അവിടെ ഒരു ഡോക്ടർ കൂടുതൽ കാണാറില്ല ഡോക്ടർ കൂടുതൽ കാണാറില്ല അപ്പോൾ അതു ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കൂടുതൽ ഡോക്ടർമാരെ വെക്കാനായിട്ട് ഞങ്ങൾ പറയാറുമുണ്ട് ഞങ്ങളുടെ ഡോക്ടർമാരുടെ സേവനം കൂടുതൽ ലഭ്യമാകുന്നതിനു വേണ്ടി ഇപ്പോഴത്തെ എപ്പോഴും ഞങ്ങൾ അധികാരികളോടു സംസാരിക്കാറുണ്ട് അതാണ് ഞങ്ങളുടെ ആരോഗ്യ സംരക്ഷണം പിന്നെ ആരോഗ്യത്തിനു വേണ്ട കൂടുതലായിട്ടും ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുന്നതിനു വേണ്ടി അതും ആവശ്യപ്പെടാറുണ്ട് ഗതാഗതം ഗതാഗതത്തിനു വഴി ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഗ്രാമപ്രദേശമായതു കൊണ്ട് എല്ലായിടത്തൊന്നും വഴിയില്ല നല്ല വഴിയൊന്നുമില്ല നല്ല പോലത്തെ ടാറിട്ട റോഡൊന്നുമില്ലാ ഞങ്ങൾ കൂടുതലും കുന്നും മലകളൊക്കെയാണ് അപ്പം എല്ലായിടത്തും വഴികളൊന്നുമില്ല ഒരു വഴിയുണ്ട് ഞങ്ങൾക്ക് ഒരു റോഡേ ഉള്ളു ആ റോഡ് ഒത്തിരീ ഗതാഗത യോഗ്യമാണ് എന്നാലും വികസി വികസനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ് ഗതാഗത യോഗ്യമായ വഴിയാണെങ്കിൽ പോലും വീതി കുറവും മറ്റൊക്കെയുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ വിദ്യാഭ്യാസമാണെങ്കിൽ ഞങ്ങൾക്കിവിടെ സ്കൂളുകൾ ഒരു ഹയർ സെ സെക്കണ്ടറി സ്കൂളുണ്ട് ഗവൺമെന്റിൻ്റെ പിന്നെ മറ്റ് പ്രൈവറ്റ് സർക്കാരിൻ്റെ അല്ലാത്ത മാനേജ്മെൻറ് സ്കൂളുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല അതു പോലെ പോകുന്നുണ്ട് പിന്നെ മറ്റടിസ്ഥാനാവശ്യങ്ങളെന്നു പറഞ്ഞാൽ സ്കൂളുകളിലേക്ക് ബസ്സും മറ്റു സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്നാലും സ്കൂൾ ബസ്സുകളൊക്കിപ്പുണ്ട് കുറേ കുട്ടികളൊക്കെ നടന്നു പോകുന്നവരുള്ളൂ അന്നൊക്കെ നേരത്തെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ പേരും നടന്നു പോയാണ് വിദ്യാഭ്യാസത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം എല്ലാവരും തന്നെ വാഹന സൗകര്യങ്ങളൊക്കെയുണ്ട് അങ്ങനെയുള്ള സ്കൂളുകളാണ് കൂടുതലും